നിങ്ങളുടെ പ്രദേശത്തെ കർഷകരുടെ അവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മാധ്യമങ്ങളെ പ്രതേകിച്ച് സത്യസന്ധതയോടെ ഒന്നും ചെയ്യാറില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കർഷകരുടെ അവസ്ഥ വളരെ ദയനീയമാണ് അവരുടെ പ്രശ്നങ്ങൾ വളരെ അധികം പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു ഒരുപാട് കർഷകർ കടം കയറി ആത്മഹത്യ ചെയ്യുന്നു പക്ഷേ അതൊന്നും തന്നെ മാധ്യമങ്ങളിൽ വരാറില്ല പലതും മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു റബർ കർഷകരെ സംബന്ധിച്ചെടുത്തോളം വളരെ അ ധികം ബുദ്ധിമു്ട്ട അഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് റബർ കർഷകർക്ക് വളരെ അധികം പ്രശ്നങ്ങളുണ്ട് മഴ കാരണം ഒരുപാട് റബർ കൃഷി ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് പക്ഷേ അതൊന്നും തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ല അല്ലെങ്കിൽ കർഷകർക്ക് ആവശ്യമായ ഒരു ഒരു സഹായവും മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കാറില്ല മഴക്കാലത്ത് റബറിനു സംബന്ധിച്ചെടുത്തോളം വില കൂടുകയും മഴ കഴിയുമ്പോൾ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ വില കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഏതു കാർഷിക മേഖല എടുത്താലും വളരെ അധികം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടു തന്നെ ഇന്ന് കാർഷിക മേഖലയിലേക്ക് തിരിയാൻ തന്നെ ആളുകൾക്ക് വിഷമമാണ് ഒരുപാട് കർഷകർ അവരുടെ സാമ്പത്തിക പരാധീനതകൾ മൂലം തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്തൊക്കെ ആയാലും മാധ്യമങ്ങളിലൂടെ അധിക ശ്രദ്ധ കർഷകരുടെ കാര്യത്തിൽ വരുന്നുണ്ടോ എന്നു ചോദിച്ചാൽ അവ വളരെ അധികം സംശയകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഒരു മാധ്യമവും കൃത്യമായി അവര ഓരോ കർഷകൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒന്നും തന്നെ ഒന്നും തന്നെ ചെയ്യാറില്ല വളരെ അധികം വേദന അനുഭവിക്കുന്ന കർഷകർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് ഒരുപാട് കാർഷിക മേഖലയിൽ തന്നെ ഇന്ന് വളരെ അധികം പ്രശ്നങ്ങളാണ് ഒരുപാട് വിഷകരമായ കാർഷിക വിളകൾ തന്നെയാണ് നമ്മൾ ഇന്ന് ആഹാര കാര്യത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് ഒത്തിരി വിഷം വി ഷാംശങ്ങൾ ചേർത്താണ് കാർഷിക വിളകൾ തന്നെ തയ്യാറാക്കുന്നത് പക്ഷേ അതൊന്നും തന്നെ മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല അതുകൊണ്ടു തന്നെ വിഷം കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് മലയാളികളായ നാം എല്ലാവം ഇന്ന് കടന്നു പോകുന്നത് അതുകൊണ്ടു തന്നെ പിന്നെ കാർഷിക കർഷകം കാർഷിക മേഖലയിൽ വളരെ അധികം പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നീജമായ പ്രവർത്തികൾ ചെയ്യുവാൻ ആൾക്കാർ തയ്യാറാകുന്നത് ആൾക്കാരുടെ ഈ നീജമായ പ്രവർത്തിയെ കുറിച്ച് ചർച്ച ചെയ്യുവാനൊന്നും യാതൊരു കർഷകനും തയ്യാർ ഒരു മാധ്യമം തയ്യാറാകുന്നില്ല എന്നതാണ് സത്യാവസ്ഥ പക്ഷേ ദീപിക പോലെയുള്ള മാധ്യമങ്ങൾ പലപ്പോഴും കർഷകരുടെ അവസ്ഥ മനസ്സിലാക്കി നിലപാടുകൾ എടുക്കുമ്പോഴും രാഷ്ട്രീയപരമായി അതിനെ പിന്തള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ പോകാറുണ്ട് കർഷകൻ എപ്പോഴും അവൻ്റെ അവൻ്റെ ബുന്ധിമുട്ടുകൾ വക വയ്ക്കാതെ കാർഷിക മേഖലയിലേക്ക് തിരിയുമ്പോൾ അവനെ അവൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുവാൻ പോലും സർക്കാരിനു പോലും ഇന്നു കഴിയാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ നാടുകളിൽ നമ്മുടെ കുട്ടികൾ പലപ്പോഴും കാർഷിക മേഖലയിൽ നിന്ന് പിന്തിരിയപ്പെടുന്ന ഒരു കാലമാണ് ആർക്കും തന്നെ കാർഷിക മേഖലയിലേക്ക് പോയി ഒന്നും ചെയ്യുവാനായിട്ട് ഉള്ള മനസ്സില്ല കാരണമെന്നു വച്ചാൽ ഒരു ഒരു കർഷകനും ഇന്നൊരു നല്ല നിലയിലേക്ക് എത്തിയതായിട്ട് കാണുന്നില്ല അതുകൊണ്ടു തന്നെ കുട്ടികളായ കുട്ടികൾക്കു പോലും പലപ്പോഴും കാർഷിക മേഖലയോടു തന്നെ വെറുപ്പുളവാക്കുന്ന ഒരു രീതിയാണ് നാം പലപ്പോഴും കാണുന്നത് മാധ്യമങ്ങളിലൂടെ കാർഷി കാർഷിക മേഖലയെ കുറിച്ച് ഒരു നല്ല വാർത്തയോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കാർഷികമേഖല ഇന്ന് വരെയധികം വികസിക്കുന്ന ഒരു മേഖലയായി ഒരു മാറാറുണ്ട് പക്ഷേ പലപ്പോഴും ഒരു മാധ്യമവും അങ്ങനെ ഒരു കാർഷികമേഖലയെ കൂടുതൽ പാടുത്തുയർത്തുന്ന ഒരു പ്രവർത്തനവും കാഴ്ചവെക്കാറില്ല എന്നതാണ് സത്യം എന്തായാലും എങ്ങനത്തെ ഏതുതരം മാധ്യമങ്ങളായാലും ആ മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ ആ നമുക്ക് നമ്മുടേ നാട്ടിൽ കാർഷിക വിളകൾ അമിതമായി ഉൽപ്പാദിപ്പിച്ച് നല്ല ഒരു കാർഷിക മേഖല മേഖലയിൽ തന്നെ ഒരു വികസനം ആ ഉണ്ടാക്കുവാനായിട്ട് കഴിയുമായിരുന്നു പല ആളുകളും കാർഷിക മേഖലയിലേക്ക് സ്വന്തം ആവിശ്യങ്ങൾക്ക് ആയിട്ട് തിരിയുന്നു കാർഷിക കാർഷി ആ കാർഷിക കൃഷി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എങ്കിലും പക്ഷേ അതൊരു വാണിജ്യ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് സത്യം ഓക്കേ ഒക്കെ